നമ്മുടെ അടുത്ത് മാസ്ക്കുകളും മറ്റ് പി പി കിറ്റുകൾ തുടങ്ങി ഇങ്ങനെ ഈ കൊറോണയുടെ ആ ഒരു സമയത്ത് ആരംഭിച്ച ഒരു യൂണിറ്റ് ഉണ്ട് അത് നല്ല രീതിയിൽ വിജയം കണ്ടെത്തിയ ഒരു ഒരു സ്ഥാപനമാണ് ആദ്യത്തെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആൾക്കാര് കംപ്ലീറ്റ് അടുത്തുള്ള അതായത് നമ്മുടെ നാട്ടിലെ ആൾക്കാര് തന്നെയാണ് പിന്നെ അവര് കുടിൽവ്യവസായം വഴി നമ്മുടെ ഇഷ്ടത്തിന് ഒരോ പീസ് റേറ്റിനും മറ്റും ആയിട്ട് അവര് കുറേ പ്രൊഡക്റ്റ് നിറയെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഒരു പ്രോഫിറ്റ് ആയിട്ട് അവർക്ക് വന്നു ഇപ്പോൾ അത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ബിസിനസ് ആണ് നല്ല രീതിയില് സക്സസ്സ് ആയ ബിസിനസ് ആണ്